ഞാൻ കുഞ്ഞുന്നാളിലും സ്കൂളുകളിലും എല്ലാം സാധാ രീതിയിലുള്ള ചിത്ര രചനയായിരുന്നു വരച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുയും അതിലൂടെ കൂടുതൽ കൂടുതൽ വീടിൻ്റെ പ്ലാനുകളും ഒരുപാട് ബുദ്ധിമുട്ടേറിയ ഡ്രാഫ്റ്റുകളും വരയ്ക്കേണ്ടി വന്നു അപ്പോൾ എൻ്റെ പ്രദീഷ് സാർ ആണ് എന്നെ സഹായിച്ചത് നമ്മുടെ സ്കെയ്ലിൻ്റെയും പെൻസിലിൻ്റെയും നമ്മുടെ ചിത്ര രചന ഉപകരണങ്ങളുടെയും ഒരുപാട് ശൈലികളും പ്രത്യേകതകളും സാർ എന്നെ പഠിപ്പിച്ചു ഓരോന്നും ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിംഗ് വളരെ അധികം മെച്ചമാവും ഗൂഗിളിലും മറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വരകൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പെൻസിൽ ഡ്രോയിംഗ് പോലുള്ള ആപ്പുകൾ കാണാം ഞാൻ അത് ഉപയോഗിച്ച് കോമ്പസും മട്ട ത്രികോണവുമെല്ലാം ഉപയോഗിച്ച് വൃത്തിയിലും കൃത്യമായ അളവുകളോടും കൂടിയുള്ള ചിത്രം വരയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് എൻ്റെ വര മെച്ചപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ നമ്മുടെ ഗുരുക്കന്മാരും മറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചെയ്താൽ നമ്മുടെ എല്ലാ വിധയും ഒന്നിനൊന്ന് മെച്ചമായിരിക്കും